ആ ഇത് ഇന്നലെ വിളിച്ച ആളല്ലേ ഡൽഹിയിൽ നിന്ന് വരുന്നത്

രണ്ട് മണി കഴിയുമ്പത്തേന് നെടുമ്പാശ്ശേരി എയർപോട്ടില് അവിടെ നിന്നെനിക്ക് തീർത്ഥാടനത്തിന് പോകുമ്പോഴ് ബുക്ക് ചെയ്യണോ അതോ ഞാനവിടെ ടാക്സി വിളിച്ച് വരണോ ക്ഷേത്രത്തില് അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് തരുമോ മേഡം ഇപ്പം നെടുമ്പാശ്ശേരിയിൽ നിന്നാണെങ്കില് അവിടുന്ന് ട്രെയിനിൽ നിന്ന് വരുന്നതായിരിക്കും കുറച്ചും കൂടി സൗകര്യം ട്രെയിന് വന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ തമ്പാനൂര് റെയിൽവേ സ്റ്റേഷനില്ലേ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ടാക്സി വിളിക്കുന്നായിരിക്കും നല്ലത് അവിടുന്ന് ടാക്സി വിളിച്ച് കഴിയുമ്പത്തേനും പത്മനാഭസ്വാമി ക്ഷേത്രത്തില് കൊണ്ടെത്തിക്കാന് വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല അപ്പോൾ ആ ഇത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി

ചുരിദാറിടാൻ പറ്റുമോ അതോ സാരി ആണോ പറ്റുകയുള്ളു അതിനകത്തു എഴുതിയിട്ടുണ്ട് സാരിയെ പറ്റിയുള്ളത് സാരി ഉടുത്താലൊന്നുല്ല അതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും കാണുമോ കൂടെ ആ ആ അതിനൊക്കെ ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തരാം കുഴപ്പമൊന്നുമില്ല പിന്നെ ചുരിദാറിട്ടുകൊണ്ട് വന്നാലും അതിന് മേലെകൂടെ ഒരു മുണ്ടുടുത്താൽ മതി എന്നാൽ ഇവിടുത്തെ ഒരു ഇത് സാരി ഉടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ മാഡത്തിന് സാരി ഉടുക്കണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം

അറിയാവുന്നവരില്ല പക്ഷേ നമുക്ക് താമസ സൗകര്യമാണെങ്കിൽ നമുക്ക് വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഫുഡ് ആഹാരങ്ങളാണ് വേണ്ടത് അതിനകത്തേത് ഇത് പിന്നേ ഫസ്റ്റ് ആദ്യമേ എനിക്കുള്ള ഇത് എന്ന് പറഞ്ഞെങ്കിൽ അത് പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കുക അതിന് വേണ്ട സൗകര്യങ്ങളൊരുക്കിത്തരണം അത് കഴിഞ്ഞിട്ട് ബാക്കി തിരുവനന്തപുരമൊന്ന് ചുറ്റി കാണണമെന്നും ചെറിയ താല്പര്യമുണ്ട് അതിനെ കുറിച്ചൊക്കെ ചെറിയ ഒരു ലഖു വിവരണം തന്നിട്ട് അതൊക്കെ കണ്ടിട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് ആ അപ്പം തമ്പാനൂര് ഐ മീൻ അവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് എത്ര മണിക്കാണ് ട്രെയിൻ കയറുന്നത് എന്ന് പറയണം ആ അപ്പം അതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങള് തീരുമാനിക്കാം അതായത് തിരുവനന്തപുരത്ത് എപ്പം വരുന്നു അവിടെ നിന്ന് നമ്മളെത്ര മണിക്ക് അമ്പലത്തിൽ പോകുന്നു രാവിലെയാണോ വൈകിട്ടാണോ ദീപാരാധന സമയത്ത് പോകണോ എന്നൊക്കെയുള്ള നമുക്ക് ഇപ്പം തീരുമാനിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയൊരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ

ആ അങ്ങനെ ആണെങ്കിൽ തിരുവനന്തപുരം വരെ ടാക്സിക്ക് വരാൻ പറ്റുവെങ്കിൽ വന്നോ കുഴപ്പമില്ല ഇവിടുന്ന് അത് ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഞാന് വന്ന് വിളിച്ചോളാം അതിനും പിന്നെ നിൽക്കാനും ഉള്ള അതായത് താമസ സൗകര്യവും ആഹാരവും എല്ലാം കൂടെ ചേർത്തിട്ടൊരു പാക്കേജ് പോലെ നമുക്ക് ചെയ്യാം ഒര് രണ്ടായിരമോ മൂവായിരം രൂപക്കിടയിലത് നിൽക്കും ഒര് ദിവസത്തേന് ഓക്കെ അവനെ വിളിക്കാം ഞാൻ എന്നാൽ കട്ട് ചെയ്തിട്ട് ശരി ശരി